ഞാനൊരാറുമാസം മുൻപൊരു പുതിയ ലാപ്റ്റോപ്പ് വാങ്ങിയാരുന്നു എച്ച് പീടെ ലാപ്റ്റോപ്പ് ഓൺലൈനായിട്ട് വാങ്ങിച്ചായിരുന്നെ അപ്പം അതിൻ്റെ പ്രവർത്തനത്തെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റത്തില്ല വളരെ എന്താ നല്ല സ്പീഡിലുള്ള ഒരു വർക്കിങ്ങാണ് അതുപോലെതന്നെ ബാറ്ററി ലൈഫ് നല്ലവണ്ണമുണ്ട് ഒന്നു ചാർജ് ചെയ്തു കഴിഞ്ഞാൽ ഒരു ദിവസം മുഴുവനുപയോഗിച്ചാലും നമുക്ക് ഇതു ഓഫായി പോകുമോ കാര്യങ്ങളൊ അങ്ങനെയൊന്നുമില്ല അപ്പം എനിക്കിതിൻ്റെ കസ്റ്റമർ സർവ്വീസും വളരെയധികം ഇഷ്ടപ്പെട്ടു ഉപഭോക്ത സേവനം വളരെ നല്ലതാണ് അപ്പം ഇങ്ങനൊരീമെയിൽ ഞാനയക്കുന്നത് എനിക്ക് അ അത്രയ്ക്കും എനിക്ക് ഇതിഷ്ടപ്പെട്ടതു കൊണ്ടാണ് ഈ ലാപ്ടോപ്പ് ഇഷ്ടപ്പെട്ടതു കൊണ്ടാണ് അതുപോലെ ഞാൻ ഈയൊരു ലാപ്ടോപ്പ് എൻ്റെ കൂട്ടുകാർക്കും എനിക്ക് പരിചയമുള്ളവർക്കുമൊക്കെ ഞാൻ ഇതു റെക്കമെൻ്റ് ചെയ്യും കാരണം നമുക്കിപ്പം ഓൺലൈനിലൊക്കെ ജോലി ചെയ്യുന്നവർക്കല്ലെങ്കിൽ ലാപ്ടോപ്പൊക്കെ ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്നവർക്കൊക്കെ എന്താ പറയുക വളരെ ഉപകാരപ്രദമാണ് എല്ലാ കാര്യങ്ങളും വേഗം വേഗം ചെയ്യാനും എടുക്കാനും പിടി ഒക്കെ പറ്റുന്നുണ്ട് എനിക്കിതിനു മുൻപുണ്ടായിരുന്ന ലാപ്റ്റോപ്പാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഈ വക കാര്യങ്ങളൊക്കെ പക്ഷെ ഇത് ഈ ലാപ്ടോപ്പ് ശരിക്കുമെന്നെ അത്ഭുതപ്പെടുത്തിക്കളഞ്ഞു